ഏതെങ്കിലും ഒരു ഉത്സവം വരുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് എല്ലാവരും കൂടി ഒന്നിച്ച് ചേരും വീട്ടിലെല്ലാവരും മക്കളും മക്കളുടെ മക്കളുടെ മക്കളും എല്ലാവരും ഒന്നിച്ച് വരുന്നു അപ്പോൾ അങ്ങനെ എൻ്റെ കുടുംബ കൂട്ടുകാരും കുടുംബക്കാരും എല്ലാം ഒന്നിച്ച് ചേരും വളരെ സന്തോഷകരമായ ഒരു അവസരമാണത് ഞങ്ങള് രാവിലെ പള്ളിയിൽ പോകുന്നു പള്ളിയില് പോയതിന് ശേഷം ആണ് ബാക്കിയുള്ള പരിപാടികള് ആരംഭിക്കുന്നത് അപ്പോൾ പള്ളി എന്ന് ആഘോഷത്തിനിടയില് നിന്ന് പള്ളിയിൽ പോക്ക് വളരെ നിർബന്ധമാണ് പള്ളി പള്ളിയിലെ ആ ആത്മീയമായ കാര്യങ്ങളോട് കൂടിയാണ് ആഘോഷങ്ങൾ ആരംഭിക്കുന്നത് എല്ലാവരും പള്ളിയിൽ പോയി പള്ളിയിൽ പോകുമ്പോൾ അങ്ങോട്ട് നമ്മള് ഓട്ടോറിക്ഷക്കാണ് പോകുക ഓട്ടോറിക്ഷയ്ക്ക് പോയിട്ട് അവിടെ പങ്കെടുക്കുന്നു അപ്പം ആൾക്കാരെല്ലാം വളരെ പുതിയ വസ്ത്രങ്ങളും എല്ലാം ന അലങ്കരിച്ച അല്ലെങ്കില് ധരിച്ചിട്ടുണ്ടാകും അല്ലെങ്കില് ആളുകൾക്കെല്ലാം പള്ളിയിൽ ചെല്ലുമ്പോൾ എല്ലാവർക്കും വളരെ ഉത്സാഹമൊക്കെ കാണാനുണ്ട് ഉത്സാഹം ഒരു ഒരു മണിക്കൂറ് ഒന്നര ഒന്നര മണിക്കൂറ് എടുക്കുന്നുണ്ട് ഒരു കുർബാന എടുക്കുന്ന കുർബാനയ്ക്ക് വേണ്ടി കുർബാനയില് എല്ലാവരും സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട് കുട്ടികളൊക്കെ വളരെ ആഘോഷപൂർവം പങ്കെടുക്കുന്നു പിന്നെ അതിന് ശേഷം പള്ളിയില് ഒരു എന്തേലും ഒരു മധുര പാലഹാര വിതരണം ഉണ്ട് അതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടികളെല്ലാം നടക്കുന്നത് പിന്നെ വീ ആളുകള് വീട്ടിലേക്ക് പോരുന്നു വീട്ടിലേക്ക് പോരുന്ന വഴിക്ക് കുറച്ച് ഇറച്ചി മേടിച്ചിട്ടുണ്ടാകും അത് കച്ചവടക്കാര് അത് ഇറച്ചി തയ്യാറാക്കി വച്ചിട്ടുണ്ടാകും അത് മേടിക്കുക വീട്ടില് വരിക വീട്ടിൽ വന്നിട്ട് ഇറച്ചി പലതിൻ്റെ ഒരു ഭാഗമാണ് ഇറച്ചി എന്നുള്ള നിലയില് ആഘോഷത്തിൻ്റെ ഒരു ഭാഗമാണ് ഇറച്ചി പോത്തിറച്ചി ആണ് സാധാരണ പോത്തിറച്ചി കോഴി ഇറച്ചി ഇത് ആഘോഷത്തിൻ്റെ ഒരു ഭാഗമാണ് അത് വളരെ ദിവസത്തെ നൊയമ്പിന് ശേഷമാകുന്നത് കൊണ്ട് ഈ മത്സ്യം മാംസാദികളെല്ലാം ഒഴിവാക്കി നോയമ്പ് നോമ്പിന് ശേഷമാണ് ആഘോഷം വരുന്നത് അപ്പം ഈ ആഘോഷം നമ്മള് ക്രിസ്മസ് ആയാലും ഈസ്റ്ററായാലും അങ്ങനെ തന്നെയാണ് നൊയമ്പിന് ശേഷമാണ് അപ്പം ഈ നൊയമ്പ് വീടുന്നതിനനുസരിച്ച് നമുക്ക് എല്ലാവരും മത്സ്യ മാംസങ്ങൾ എല്ലാം കൂട്ടാൻ വളരെ ധൃതി കൂടി ആകാംക്ഷപൂർവം ഇരിക്കുന്നത് കൊണ്ടാവാം വളരെ ചെലവാണ് അതിപ്പോൾ ഇല്ലെങ്കില് ഇറച്ചിയില്ലാതെ ഒരു ആഘോഷം പറ്റില്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അതുണ്ടാക്കുന്നത് വളരെ നന്നായിട്ടാണ് ഉണ്ടാക്കുന്നത് അത് വീട്ടില് വളരെ അവളുടെ കുടുംബാംഗങ്ങൾ മിക്ക എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചാണ് ചെയ്യുന്നത് അല്ലെങ്കിലും സ്ത്രീകളാണ് ഒരു മുൻകൈ എടുക്കുന്നത് പുരുഷന്മാര് ചിലപ്പോൾ മുൻകൈ എടുത്തില്ല എന്ന് വരാം എങ്കിലും അവര് വെടി പറഞ്ഞും അല്പം ചീട്ട് കളിച്ചും ഒക്കെ അങ്ങനെ സമയം കളയുന്ന കൂട്ടത്തിലുണ്ട് അങ്ങനെ ഭക്ഷണം കാ കഴിക്കുന്നതോടുകൂടി ഒന്നാമത്തെ ഭക്ഷണം ആകുന്നു ഭക്ഷണം കഴിക്കുന്നതാടു കൂടിയാണ് അവിടെ നില്ക്കുന്നത് എന്തും ആഘോഷങ്ങള് ആരംഭിക്കുന്നത് പിന്നീട് ഓരോരുത്തരും സൗകര്യത്തിനനുസരിച്ച് ഭക്ഷണം ഇങ്ങനെ ഉച്ചയ്ക്കത്തേക്കുള്ള ഭക്ഷണം വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം എല്ലാവരും കൂടെ നമ്മള് ആൾക്കാര് പോകാനുള്ള തിടുക്കത്തിനനുസരിച്ച് ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം ഭക്ഷണ സമയങ്ങള് അറേഞ്ച് ചെയ്യുന്നു മിക്കവാറും രാവിലെ വന്നാൽ ഉച്ച കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ ഭക്ഷണം കൂടെ കൂടി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പിരിയാറുള്ളൂ അങ്ങനെയാണ് അങ്ങനെ ഓരോരുത്തരും വന്ന് അതിനിടയിൽ ചീട്ട് കളിക്കുന്നവരാണ് അങ്ങനെ ചീട്ട് കളിക്കുന്നുണ്ടാകും സ്വല്പം അല്പ സ്വല്പം മദ്യപിക്കുന്നവര് അത് ചെയ്യുന്നുണ്ടാകും അപ്പം എങ്ങനെ ആയാലും ഒരു ആഘോഷമായ ഒരു ഉത്സവമാണ് നമ്മൾ ആഘോഷിക്കുന്നത്